കൊവിഡിന്റെ മഹാമാരിയുടെ കാലത്ത് നടപ്പാക്കിയ പ്രതിരോധ നടപടികള് എന്തൊക്കെയാണെന്ന് എന്തുവാ അത് പറയുന്നത് പ്രതിരോധ നടപടികളായിട്ട് ആൾക്കാരെ മുഴുവന് രോഗികളായിട്ടുള്ളവരെ പ്രത്യേകമൊന്നിച്ചുകൂട്ടി ഒരിടത്ത് താമസിപ്പിക്കുക അതുകഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ കൊണ്ടുപോയി ഐസൊലേറ്റ് ചെയ്യുക അവര്ക്ക് വേണ്ട ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ആഹാരസാധനങ്ങളും എല്ലാം കൊടുക്കുക ഇതെല്ലാം കൊടുത്ത് അവരെ നോക്കാന് വേണ്ടി ഒരു ആള്ക്കാരുണ്ടായിരുന്നു അതൊക്കെ നല്ല കാര്യങ്ങളായിരുന്നു അങ്ങനെയൊക്കെ ചെയ്ത് ഏതായാലും ഒത്തിരി പേർ മരിക്കാതെയും ഓഹ് രോഗം പിടിക്കാതെയും ഒക്കെ ഇരുന്നു അങ്ങനെ വന്നപ്പം നല്ലയിതാണ് നല്ല ഇതൊക്കെയാണ് ചെയ്തത് പിന്നെ ഈ മഹാമാരിയുടെ കാലത്ത് ഇഷ്ടംപോലെ ആള്ക്കാർ രോഗം വരാത്തവരൊക്കെ ഇഷ്ടംപോലെ സംഭാവനകൾ ചെയ്യുകയും ഭക്ഷണപദാര്ത്ഥങ്ങളും മറ്റും ഒരുക്കി കൊടുക്കുകയും അതിനൊക്കെ ഏജന്സികളെ വെക്കുകയും ഏജന്സികളുടെ കൊടുക്കുകയും അവരപ്പം കൊണ്ടുപോയി അത് മറ്റുള്ളവര്ക്ക് വിതരണം ചെയ്യുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് പിന്നെ ഒത്തിരി കാശ് പിരിച്ചു കാശ് പിരിച്ചതൊക്കെ എടുത്ത് എല്ലാവര്ക്കും ചിലവിന് കൊടുക്കുകയും പുരപണി നടത്തിക്കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ എല്ലാം നല്ല കാര്യങ്ങളാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പ്രാവര്ത്തികമാക്കി അത് ഫലപ്രദമാണോ അല്ലയോയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫലപ്രദമാണ് കുറേയൊക്കെ കുറേയൊക്കെ അല്ല രണ്ട് രീതിയിലുണ്ട് കാരണം ആ സമയത്തൊക്കെ ഒത്തിരി ആള്ക്കാർ അവിടെനിന്നും ഇവിടെനിന്നും ഒക്കെ വന്ന് പലയിടത്തും ഇങ്ങനെ സ്കൂളുകളിലൂടെയൊക്കെ താമസിച്ചവര്ക്ക് ചിലര്ക്കൊക്കെ ചില സമയത്തൊക്കെ ഭക്ഷണം പോലും ശരിക്ക് കിട്ടിയില്ലെന്ന് പറയാറുണ്ട് പിന്നെ കിട്ടുന്നവർ കൊണ്ട് കുറേ കൊടുക്കും കുറേയൊക്കെ അവിടെ ഇവിടേയും കൂട്ടിയിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പത്രത്തില്ക്കൂടിയും എല്ലാം ഇങ്ങനെ വാര്ത്തകളൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പിന്നെ ഇടയ്ക്ക് കൊട്ടാരക്കരയിലോ അവിടെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ സംഭവം നടന്നിട്ടുണ്ടെന്നാ കേട്ടിട്ടുണ്ട് കേട്ട കാര്യങ്ങളെ നമുക്കറിയത്തുള്ളു അത് കൂടുതലായിട്ടൊന്നും ഔദ്യോഗികമായിട്ട് പറയാനൊന്നും നമുക്കറിയില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഇതാണ് മഹാമാരി വന്നത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെ പേടിപ്പിച്ചു അവരെ പേടിപ്പിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തി എല്ലാം മുന്നോട്ട് പോയി എത്ര ആശുപത്രികളും കാര്യങ്ങളും എല്ലാം നല്ല ഇതായിട്ടുതന്നെ പ്രവര്ത്തിച്ചു അതൊക്കെ നല്ല ഇതായിരുന്നു പിന്നെ രോഗികളായിട്ട് കഴിയുന്നവരെയൊക്കെ ശ്രുശ്രൂഷിക്കുകയും നോക്കുകയും അതും ഒക്കെ ചെയ്യുന്നതൊക്കെ വലിയ എല്ലാവര്ക്കും ഇപ്പം പഞ്ചായത്തുകളിൽ നിന്നൊക്കെ മരുന്നു കൊടുക്കുകയും ഫ്രീയായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ കൂട്ടത്തിൽ രോഗം വന്നവരാണ് ഞാനും എന്റെ ഭാര്യക്കും രോഗമൊക്കെ വന്നു ഞങ്ങൾക്ക് മരുന്നുകളും ഒക്കെയാണ് ഞങ്ങൾ വീട്ടിത്തന്നെയാണ് കിടന്നത് ആ സമയത്ത് വേറെ വീട്ടിലാളില്ലാതിരുന്നത് കൊണ്ട് അവർ ആശുപത്രിയിൽ നിന്നും ഒക്കെ ആള്ക്കാർ വരും വന്ന് ഞങ്ങൾക്ക് വേണ്ട മരുന്നുകളും ഒക്കെ തന്നിട്ട് പോവും അത് കഴിക്കും അങ്ങനെ പഥ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം നോക്കി മുന്നോട്ടിങ്ങനെ പോയി അതെല്ലാം നല്ല ഇതായിരുന്നു അതങ്ങനെ വെച്ചൊക്കെ നോക്കുമ്പം ഏതായാലും അധികം ആള്ക്കാര്ക്കൊന്നും വരുത്താതെ അത് മുന്നോട്ട് പോയി എല്ലാം ആ കെട്ടടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതിനുള്ള ഇന്ജെക്ക്ഷൻ എടുക്കാന് പോയി ഇന്സുലിന് എടുക്കുകയും രണ്ട് മൂന്ന് മൂന്ന് വാക്സിനെടുത്തു വാക്സിനൊക്കെ എടുത്തു അതെല്ലാം നല്ല കാര്യങ്ങൾ ആ വാക്സിനൊക്കെ ഫലപ്രദമായിരുന്നോയെന്ന് ചോദിച്ചാല് ആ കുറേയൊക്കെ ആയിരുന്നു കുറേയൊക്കെ അല്ലെന്നും പറയാം കാരണം അതിന്റെ ഭവിഷ്യത്തുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആള്ക്കാർ പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല നമ്മളൊരു ഡോക്ടറൊന്നും അല്ലാത്തതുകൊണ്ട് അതൊന്നും നമുക്ക് പറയാന് പറ്റത്തില്ല എങ്കിലും കാര്യങ്ങളൊക്കെ ഒത്തിരി മുന്പന്തിയിലായിരുന്നു മുന്നോട്ട് പോയി നല്ലതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നല്ലതാണ് ഓക്കെ